കഴിഞ്ഞ ഒരു വർഷത്തിനിടെ എൻ്റെ ഹസ്ബൻഡിന് ഉം ഗ ഗൾഫിലേക്ക് പോയിരുന്നു ഒര് കമ്പ്യൂട്ടറ് ഏ സോഫ്റ്റ്വെയറിൻ്റെ ഒരു ജോലിയായിരുന്നു എൻ്റെ ഹസ്ബൻൻ്റിന് അപ്പോൾ എറണാകുളത്തായിരുന്നു ഉണ്ടായിരുന്നത് അപ്പോൾ ഗൾഫിലേക്ക് പോയി ഒരുമാസം ആവുമ്പോഴത്തേക്ക് പോകുമ്പോൾ പറഞ്ഞ പാക്കേജ് ഒന്നുമല്ല പിന്നീട് സാലറി കുറച്ചു അതുപോലെ അവര് പറഞ്ഞ എല്ലാ കാര്യങ്ങളും കുറച്ചു അപ്പോൾ അവിടുന്ന് ഇങ്ങോട്ട് പോന്നു ആ ജോലി ഉപേക്ഷിച്ച് ഇങ്ങോട്ട് പോന്നു പിന്നീട് ജോലി ആകാൻ ഒരു ആറേഴു മാസം പിടിച്ചു ആറേഴുമാസം ജോലിയില്ലാതെയാണ് എൻ്റെ ഹസ്ബൻൻ്റ് നടന്നത് ആ അതിൻ്റെ ഇടയില് നമുക്ക് വീടിന് ലോണുണ്ട് അത് അടയ്ക്കണമായിരുന്നു അതുപോലെ ചെലവ് അതൊക്കെ വളരെ ബുദ്ധിമുട്ടായിരുന്നു ചെലവിനൊന്നും പൈസ ഇല്ലാതെ കടങ്ങളൊക്കെ വാങ്ങി ഒരുപാട് ബുദ്ധിമുട്ടിയിട്ടുണ്ടായിരുന്നു പിന്നെ ഒരു പെട്ടെന്നൊരു അ ആദ്യം ജോലിക്ക് നിന്ന സ്ഥലത്ത് എൻ്റെ ഹസ്ബൻ്റിനൊരു കോള് വന്നു അപ്പോൾ അവിടുത്തേക്ക് പോയി നോക്കുമ്പോൾ ഇപ്പോൾ ജോലിയില് കയറി ഇപ്പോൾ രണ്ടുമാസമായി ജോലിയില് കയറിയിട്ട് കടങ്ങളൊക്കെ വീടി പിന്നെ നല്ല രീതിയില് തന്നെ ഇപ്പോൾ പോകുന്നു അപ്പോൾ ക അവിസ്മരണീയമായ അല്ലെങ്കിൽ അനുഭവം ഇതന്നെയാണ് ആദ്യം ഒരു സങ്കടഘട്ടത്തിൽ കൂടെ കടന്നു പോകുമ്പോൾ പെട്ടെന്ന് ഒരു സന്തോഷം കിട്ടിയാൽ ഭയങ്കര വലിയൊരു സന്തോഷത്തിലൂടെയാണ് ഇപ്പം നമ്മള് കടന്നു പോകുന്നത് നല്ല വലിയൊരു നേട്ടം കിട്ടിയത് ഇതാണ് എൻ്റെ ഒരു കഴിഞ്ഞ ഒരു വർഷത്തിനിടെ നടന്ന ഒര് അനുഭവം നല്ല സങ്കടവും അതുപോലെ തീരെ ഡൗണായിരിക്കുന്ന സമയത്ത് ജോലി കിട്ടി പിന്നെ കടങ്ങളൊക്കെ വീടിക്കഴിഞ്ഞതിനു ശേഷം ഇപ്പോൾ നല്ല രീതിലാണ് പോകുന്നത്